ഹോട്ടലുകളും തട്ടുകളിലും എപ്പോഴും പോയി കഴിക്കാറുണ്ട് സ്ഥിരമായിട്ടും നമ്മൾ വെറൈറ്റി പിടിക്കും എ എപ്പോഴും പക്ഷെ എപ്പോഴും കഴിക്കുന്ന പൊറോട്ട ചിക്കൻ ഫ്രൈ ഒക്കെയാണ് മലയാളിയെന്ന് പറയുമ്പം പൊറോട്ട ബീഫ് എപ്പോഴും കഴിക്കുന്ന ഒരു ഇതാണ് എന്ത് കൊണ്ടാണെന്ന് ചോദിച്ചാൽ പൈൻ വളരെ ഇഷ്ടമാണ് നമ്മൾ മുടക്കില്ല നമ്മുടെ നമ്മുടെ ഒരു ദേശിയ ഭക്ഷണം പോലെയാണ് കേരളത്തിൻ്റെ പൊറോട്ടയും ബീഫും പൊറോട്ട ചിക്കൻ ഫ്രൈയും ഒക്കെ വളരെ ഇഷ്ടമാണ് കഴിക്കാൻ പിന്നേ തട്ടുകടയിൽപ്പോയി കഴിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊത്ത് പൊറോട്ട കഴിക്കും കൊത്ത് പൊറോട്ടയൊക്കെ വളരെ രുചിയേറിയ ഒരു വിഭവമാണ് ചില സ്ഥലങ്ങളിലെയൊക്കെ തട്ടുകടകളിലെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അലുവ പൊറോട്ട അതുപോലെതന്നെ നമ്മൾ കഴിക്കുന്നത് ഇപ്പം പൊരിച്ച കോഴിയൊക്കെ ഇപ്പോൾ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് പിന്നെ നമ്മൾ ഇപ്പം തട്ടുകടകൾ പോലും ഇപ്പം ആ ഇച്ചിരി ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് പിടിക്കുന്നത് എന്നാലും നല്ല വിഭവ സമൃദ്ധമായ ഒരു രീതിയിലാണ് അവർ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും തന്നാണ് എന്തുവ ഏറ്റവും കൂടുതൽ കഴിക്കാറ് വളരെ ഇഷ്ടമാണ്